പണ്ടൊക്കെ ആണേ നമ്മള് നല്ല ശുദ്ധ മലയാള ഭാഷയാണ് പറഞ്ഞോണ്ടിരുന്നേ ഇപ്പൊഴാണെങ്കില് അങ്ങനെ അല്ല നമ്മളതിൻ്റെ കൂട്ടത്തില് വേറെ അത് ഇതെന്നും ഭാഷകളും ആംഗ്യങ്ങളൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പിന്നെ പറയാം തള്ളാ ഭയങ്കര തള്ളാ അല്ലെങ്കില് ഭയങ്കര തള്ളാണ് അങ്ങനെക്കെയാ ഓരോരുത്തര് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നെ അതൊക്കെ ഇങ്ങനെ തള്ളാ ഭയങ്കര തള്ള് ആ പിന്നെ ഭയങ്കര തള്ള് അങ്ങനെയൊക്കെ പറയും അത് എന്നാന്ന് ശരിക്കും പറഞ്ഞാല് നമുക്കുതന്നെ അറിയത്തില്ലായിരിക്കും ഇങ്ങനെ പിള്ളേര് പറയും നമ്മള് കേട്ടിട്ട് നമ്മള് പിന്നെ പറയുന്നു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വ്യത്യാസങ്ങളൊക്കെ വന്നോണ്ടിരിക്കുകയാണ് പിന്നേ ശരിക്കും നല്ല മലയാളം ഭാഷയെന്ന് പറഞ്ഞാല് നമ്മള് തിരുവിതാംകൂറിലെ ആ മലയാളമാണ് കോട്ടയം ഭാഗത്തെ മലയാളമാണ് നല്ല മലയാളം ഇപ്പോള് നമ്മള് ചോയിക്കും എന്തെരെട്ക്ക്ന്ന് എന്തര് എവട പോയി ഒക്കെ എപ്പടി ഇരിക്ക് അങ്ങനേക്ക്യാണ് ചോദിക്കുന്നത് അപ്പോള് അത് മലയാളവും തമിഴുമെല്ലാം കലർന്നുവന്ന ഭാഷകളും അങ്ങനെ എന്തര് അപ്പോള് തിരുവനന്തപുരം ഭാഷയ്ക്കൊക്കെയാണെങ്കിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മള് കേള്ക്കുന്ന ഭാഷയെന്ന് പറഞ്ഞാല് കോട്ടയം ഭാഷ ആ നല്ല രീതിയിൽ നമ്മള് യൂസെയ്തോണ്ടിരുന്ന് ഇപ്പോള് നമ്മള് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടത്തെ ആൾക്കാര് പറയുന്നതു കേട്ടുകൊണ്ട് തമിഴും മലയാളവും കൂടെ കൂട്ടി കലർത്തി ഇങ്ങനെ എന്തിര് എപ്പം എവിട പോണ് അപ്പീ അപ്പീ അപ്പി സുഗാണാ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് നമ്മള് നമുക്ക് അത് ശരിക്കും പറഞ്ഞാല് അത് ഏത് രീതിയിലാന്ന് അറിയത്തില്ലാത്ത നമ്മളും നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഭാഷ തിരിയേലാ ഏത് ഈ അപ്പി അപ്പീന്ന് പറഞ്ഞ എന്ത് അതുപോലെ കെടാവ് കുഞ്ഞുങ്ങളെ പറയുന്നെയാ പിള്ളാരെ പറയുന്നെയാ കിടാവ് അപ്പോള് അത് ഓരോ സ്ഥലത്തിൻറ്റേതായിട്ടുള്ള ഇതാണ് അത് അപ്പോള് നമുക്കത് ഒട്ടും തിരിയുന്നില്ല അങ്ങനത്തെ പറഞ്ഞ ഇതെന്തോന്ന് കിടാവ് കിടാവ് കിടന്ന് കരയുന്നു ആ നമ്മളോർക്കും എന്തോന്നാ ക്ടാവ് നമ്മളുടെ ഇവിടെ നമ്മള് പറയുന്നത് പശുക്കന്നിനെയാണ് കിടാവെന്ന് പറയുന്നെ അവരൊക്കെ പറയുന്നെ കിടാവെന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളെ കൊച്ച് കിടന്ന് കരയുന്നതിനെ പറയുന്നെയാണ് കിടാവ് കിടന്ന് കരഞ്ഞ് അങ്ങനേക്കെ ഓരോ ഭാഷകളങ്ങോട്ടു ഇങ്ങോട്ടുംകൂടെ സാദൃശ്യം വരുമ്പോഴത്തേനും അത് ഒത്തിരി വ്യത്യാസം വന്നിരിക്കുന്നു ഇവിടത്തെ തിരുവനന്തപുരം ഭാഷയെന്നു പറഞ്ഞാല് ഒത്തിരി വ്യത്യാസം അവര് പറയുന്ന് ശരിക്കും തിരി മരിച്ചീനി കപ്പ നമ്മുടെ കപ്പയ്ക്ക് പറയുന്നാണ് മരിച്ചീനി മരിച്ചിനി അവിച്ചോ വേവിച്ചോന്ന് ചോദിക്കുന്നതാണ് അവിച്ചോ അതൊക്കെയാണ് അതൊത്തിരി വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ